എൻ്റെ അച്ഛൻ ഒരു ഡിഗ്രി വരെ പഠിച്ചു എൻ്റെ അമ്മ ഒരു പ്ലസ്ടു വരെ പഠിച്ചു എന്ന് വച്ചാൽ അവരുടെ കാലങ്ങളിൽ പഠിപ്പിനെ പഠിപ്പിനെക്കുറിച്ച് വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു കളിയും കുട്ടിക്കളിയും അങ്ങനത്തെ കുറച്ച് ലാഗ്വതയായിരുന്നു ഉള്ളത് പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ച് ഇത് ഒരിതാണ് ഒരു കുറച്ച് കട്ടിയാണ് പഠിക്കാൻ കുറച്ച് പാടുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ അപ്പൂപ്പനൊക്കെയാണ് ആറു വരെ പഠിച്ചു എൻ്റെ അമ്മുമ്മ ആറു വരെ പഠിച്ചു അങ്ങനത്തെ ഒരിതാണ് പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു പ്ലസ്ടു കാലഘട്ടം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പം ഞങ്ങളുടെ ഒരു പഠിക്കുന്ന കാലഘട്ടം വന്നപ്പം കുറച്ച് പാടാണ് പഠിക്കാനൊരു ഇച്ചിരിയൊരു പാടുള്ള സബ്ജക്റ്റാണിങ്ങനെ കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതലിങ്ങനെ ഇതാകുന്നത് പിന്നെ അവരുടെ കാലഘട്ടമെന്ന് വച്ചാൽ കൂടുതലും കളിച്ചും ചിരിച്ചും അങ്ങനെ മറിഞ്ഞും ഒക്കെ ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ വന്നപ്പം അങ്ങനെയല്ല ഞങ്ങൾ കുറച്ചൊക്കെ ഓവറായിട്ട് നല്ല പഠിക്കുകയും കളിക്കാനും ചിരിക്കാനുമുള്ള വലിയ സമയമില്ല എന്ന് വച്ചാൽ നല്ല പഠിക്കേണ്ട കാലഘട്ടമാണിപ്പോൾ വന്നത്